സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മണിച്ചിത്രത്താഴ് കിലുക്കം കാബൂളിവാല അങ്ങനെ പിന്നെ സംങ്ങീ സംഗീതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് യേശുദാസ് ചിത്ര എനിക്ക് ഏറ്റവും ഇഷ്ടമുള് ഇഷ്ടപ്പെട്ട ഗായിക ഗായികമാരാണ് പിന്നെ സിനിമ നടന്മാരാണെങ്കിൽ മോഹൻലാൽ സുരേഷ് ഗോപി മമ്മൂട്ടി എന്നീ നടന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നടി നടിമാരെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശോഭന ഉർവശി കൽപ്പന യേശുദാസിൻ്റെ പാട്ടുകളാണ് ഞാൻ കൂടുതലായിട്ടും കേൾക്കുന്നത്

സിനിമകളും സീരിയലുകൾ കുറവാണ് കാണുന്നത് സിനിമകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം